ഹൈക്കിനിടെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല എനിക്ക് ആകെ ഓർമ്മയുള്ളത് ഒരു പ്രദേശത്തുകൂടെ ഞങ്ങള് സഞ്ചരിക്കുമ്പോൾ ഒരു ആനക്കൂട്ടം ഈ വണ്ടിയെ ക്രോസ് ചെയ്ത് പോയിരുന്നു അപ്പം ആ വൺ അത് ഇ ഇവ ഒരു ഉപദ്രവവും ഉണ്ടാക്കാതെ വളരെ സമാധാനപരമായിട്ടാണ് വണ്ടിയുടെ അടുത്തോട്ട് പോലും വന്നില്ല പക്ഷെ വണ്ടി നിർത്തിയിട്ടു എന്നിട്ട് ഈ ആനക്കൂട്ടങ്ങളൊക്കെ ഈ വഴി കടന്ന് അപ്പുറത്തേക്ക് പോയ ശേഷം മാത്രമാണ് നമ്മൾ തുടർന്നുപോയത് എന്ന് അതുമാത്രമാണ് എനിക്ക് അപ്രതീക്ഷിതം അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായ ഒരു കാര്യമായിട്ട് തോന്നുന്നത് കാരണം അത് അപ്രതീക്ഷിതമാണ് നമുക്കെങ്കിലും അത് ആ പ്രദേശങ്ങളിലൊക്കെ ഒരു നോർമലായിട്ടുള്ള കാര്യമാണ് കാരണം വനപ്രദേശങ്ങളിലൊക്കെ നമ്മൾ എ പോകുമ്പത്തേക്ക് മറ്റ് വന്യ മൃഗങ്ങളും ഒക്കെ പാസ് ചെയ്ത് പോവാറുണ്ട് അപ്പം അവർക്കാണ് ആ പ്രദേശത്ത് മുൻഗണന ഉള്ളത് എന്ന് തന്നെയാണല്ലോ നമ്മുടെ ഗവൺമെന്റും നിർദ്ദേശിക്കുന്നത് പിന്നെ ഞാന് അത് ട്രക്ക് അതുപോലെ ഒക്കെ ഉള്ള ട്രക്കിങ്ങിനു ഒക്കെ പോകുമ്പത്തേക്ക് നമ്മൾ മൊബൈലിൽ തീർച്ചയായിട്ടും ചിത്രങ്ങളെടുക്കാറുണ്ട് നമ്മുടെ ചുറ്റും ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളൂടെ കിട്ടുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് നമ്മൾ എപ്പോഴും എടുക്കാറ് നമ്മൾ ചില ചിത്രങ്ങളെങ്കിലും നമ്മൾ വാട്സ്ആപ്പ് അതുപോലെയുള്ള സോഷ്യ സോഷ്യൽ മീഡിയയകളിൽ സ്റ്റാറ്റസായും ഒക്കെ പോസ്റ്റ് ചെയ്യാറുമുണ്ട്